മത്സ്യബന്ധനം നടത്തുന്നവര്ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോൾ കടലില് പോകുന്നവരെ നോക്കു ആണെങ്കിൽ തന്നെ കടലിൽ പോകുന്നവര് കാറ്റായാലും മഴയാണെങ്കിലും അവര് അത് കൊണ്ട് അത് എന്താ പറയുക ആ അവർക്ക് വേണ്ട സാ മീനുകളെ പിടിച്ചിട്ട് വരുന്നു അപ്പോൾ മഴയത്ത് നനയുക് അതുപോലെ തന്നെ കാറ്റില് പെടുക അങ്ങനെയൊക്കെയാണ് മത്സ്യബന്ധനം ചെയ്യുന്ന ആൾക്കാര് ചെയ്യുന്നത് അപ്പോൾ അത് അവർക്ക് വെല്ലുവിളി തന്നെയല്ലെ മഴ മഴ പെയ്യുന്ന സമയത്ത് അതൊരു വെല്ലുവിളി തന്നെയല്ലേ ഒരുപാട് പേരെ മത്സ്യബന്ധനം നടത്താൻ പോകുന്നതിൽ കാണാതായിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു സങ്കടം ഉള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മള് ഒരു മോശം കാലാവസ്ഥ ഇപ്പംഇപ്പം ഒരു മോശം കാലാവസ്ഥയിലൂടെ തന്നെയാണ് നമ്മള് പോകുന്നത് പ്രളയമാണ് അതുപോലെ തന്നെ ചുഴലി കാറ്റുകൾ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്രദേശത്ത് അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല മഴ കൊണ്ടൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് വെള്ളപൊക്കം ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമെ ഉണ്ടാവുന്നുള്ളു